ആ ഹലോ ആ ആ എടാ ഇന്ന് നമുക്ക് ഒരു സിനിമക്ക് പോയാലോ നമുക്ക് ഏതിനു പോകാം ഏതെങ്കിലും ഒന്നിനു പോകാം അമരനിറങ്ങിയായിരുന്നോ

ആ നല്ല സി പോകണം പിന്നെ നമുക്ക് പോകാം ഒത്തിരി നാളായില്ലേ ആണോ ആ അതേ അതെയോ ആ എന്നാൽ ഓക്കെ അതു മതി ഹോട്ട് സ്റ്റാറാണോ അപ്പം അതു കണ്ടാൽ മതിയെന്നോ ആ എൻ്റെ വീട്ടിൽ ടീ വിയാണെങ്കിൽ ചീത്തയായി

പറഞ്ഞോ നിങ്ങൾ ആ ആ ആ ആ എനിക്ക് അങ്ങനെയാണ് ഹോട്ട് സ്റ്റാറങ്ങനെയാണല്ലോ അപ്പം നമുക്ക് പോകേണ്ടയെന്നോ

അതിലോട്ടോ ആണോ അല്ല ആഡ് ചെയ്തിട്ടില്ലായിരുന്നോ എന്നാൽ നമുക്ക് നീനയുടെ ചെയ്താലോ നീനയെ ആഡ് ചെയ്യാം നമ്മളെല്ലാം അല്ലെങ്കിൽ ഒരുമിച്ച് സിനിമ മൂവിക്കു പോകണ്ടേ നമ്മൾ ആ നീനയുണ്ട് പിന്നെ അബിനുണ്ട് നമുക്കവരെയൊക്കെ ആഡ് ചെയ്യാം നിതിൻ നമ്മൾ മൂന്നാല് പേരായില്ലേ ആണോ ഏകദേശമേ ആ ആണോ അത് കുഴപ്പമില്ല നമുക്ക് അടക്കാമല്ലോ അത് ഒരു കാര്യം ചെയ്യാം ഇത്രയും പേര് മ് ആ ആ

അതു നല്ല ഐഡിയയാണ് കേട്ടാൽ ആ അതു ലൈവ് ആ ലൈവ് നമുക്കു കാണാം ഹോട്ട് സ്റ്റാറിൽ കാണാൻ പറ്റും ആ ഹോട്ട് സ്റ്റാറിൽ കാണാൻ പറ്റും ആ

ആ ഞങ്ങളിങ്ങനെ ആ അല്ല ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ആ ചെയ്താൽ മതിയോ ആ ആ എന്നാൽ ശരിയടാ എന്നാൽപ്പിന്നെ നമുക്ക് പിന്നെങ്ങനെ ചെയ്യാം ആ അറിയിക്കാം ഞാനറിയിക്കാം ആ അറിയിക്കാം അറിയിക്കാം ആ ശരി ശരി ആ ബൈ ഡാ ബൈ